ഇപ്പം ശക്തി കൂട്ടണ എങ്ങനെ ഒക്കെ പറയുമ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പം ഒന്നുല്ലങ്കിൽ വീട്ടിൽ പറമ്പിൽ പോയി പണി എടുക്കുക അങ്ങനെ ഈ തൂമ്പ ഒക്കെ എടുത്ത് പണി എടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എനർജി ഒക്കെ കിട്ടും പിന്നെ രാവിലെ എണീറ്റ് എക്സെസൈസ്സ് ചെയ്യുക അല്ലെങ്കിൽ രാവിലെ എണീറ്റ് നമ്മളിപ്പോൾ എവിടേലും നടക്കാൻ പോകുക ഓടാൻ പോകുക അങ്ങനെ ഉള്ള കാര്യങ്ങള് പിന്നേന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്നതില് ഒര് ദിവസത്തിലൊര് അര മണിക്കൂറെങ്കിലും പരമാവധി നമ്മളെന്തേലുമക്കെ എക്സ്സൈസ്സ് ചെയ്യുക പിന്നെ ഒന്നുമില്ലെങ്കിൽ അല്ലെൽ ജിമ്മിൽ പോവുക അങ്ങനുള്ള കെയ്സ് കട്ട്ളകക്കെ ചെയ്തു കഴിയുമ്പം തന്നെ നമുക്ക് അത്യാവശ്യം ശക്തിയും പി അങ്ങനുള്ള കാര്യങ്ങളക്കെ കിട്ടും പിന്നെ ഓരോന്ന് എടുക്കാനുള്ള ശക്തിയും അതിനോടൊള്ള ഒരു ഇതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും ഉദാഹരണത്തിന് ഇപ്പം നമ്മളിപ്പം വീട്ടില് വെറുതെ ഇരിക്കുവാണെങ്കിൽ എന്തേലും പണി എടുക്കുമ്പം നമുക്ക് പെട്ടെന്ന് കിതയ്ക്കും അല്ലെങ്കിൽ ഡെയ്ലി നമ്മളിപ്പം എന്തേലും പണി എടുക്കുവോ അല്ലെങ്കിൽ എന്തേലുവക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കുവോ അല്ലെങ്കിൽ ആക്റ്റിവിറ്റീസ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല അയി മീ രാവിലെ എണീറ്റ് എക്സർസൈസ്സ് ചെയ്യുക അല്ലങ്കിൽ നടക്കാൻ പോകുക ഓടാൻ പോകുക ഇല്ലേ നമ്മള് പുറത്ത് പോയിട്ട് എന്തേലും ഫുട്ബോള് അങ്ങനുള്ള കാര്യങ്ങളക്കെ കാ കളിയ്ക്കുവാണെങ്കിൽ നമക്ക് കിതപ്പ് അങ്ങനുള്ള കാര്യങ്ങള് ഒക്കെ ഇതായി കിട്ടും നമുക്ക് എന്ന് പറയുമ്പം ശക്തി അങ്ങനുള്ള കാര്യങ്ങളക്കെ കൂടാനും ചാൻസ് ഉണ്ട്